ആ മരിയാ ഫിഷ് മാർക്കറ്റല്ലേ ആ അപ്പം എന്ത് എന്തൊക്കെ മീനുണ്ടിപ്പോള് അവിടെ ഉം ആവോലി അതൊന്നുമില്ലെ ആവോലി അങ്ങനെയുള്ള ഐറ്റമൊന്നുമില്ലെ ഫ്രെഷേ ഫ്രെഷ് ആ കിഴക്കന് മീനുകള് ആ ഹാ അപ്പോള് അതെങ്ങനെയാണ് അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് നാല് ആ ആ അതുശരി ആ അപ്പോള് വൃത്തിയായിട്ടൊക്കെ ചെയ്തതായിരിക്കുമല്ലോ പുതിയതായിരിക്കും അല്ലെ അതോ ആ ഹാ അതുശരി ആ ആ ആ ആ ആ അപ്പം നിങ്ങള്ക്ക് ഹോം ഡെലിവെറി ഉണ്ടോ അതോ എങ്ങനെയാണ് മ് നമുക്കൊരു നാല് കിലോ വേണം അത് വൃത്തിയായിട്ട് വൃത്തിയായി ഡ്രസ് ചെയ്ത് കൊണ്ടുവരണം ഫ്രെഷായിരിക്കണം കേട്ടോ ആ ഫ്രെഷാണെങ്കിലെ നമ്മള് വീണ്ടും ഇങ്ങനെയുള്ള ഓര്ഡറൊക്കെ തരത്തുള്ളൂ അതാണ് ആ നമ്മളെ പലരുമിങ്ങനെ കളിപ്പിച്ചിട്ടുണ്ട് ഫ്രെഷാണെന്നും പറഞ്ഞൊക്കെ ആ അത് ശരി ആ അങ്ങനെയാണെങ്കില് നമുക്ക് കുഴപ്പമില്ല നമ്മള് ഒത്തിരിപ്പേര് നമ്മളെ കളിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്രെഷാണെന്ന് പറയും നമ്മള് വീട്ടില് വരുമ്പോഴത്തേക്കും സാധനം മോശമായിരിക്കും അത് ശരി ആ അപ്പോള് കുഴപ്പമില്ല അപ്പം നമുക്ക് ഇപ്പം നാല് കിലോ കരിമീന് കൊടുത്തുവിടൂ് കേട്ടോ വൈകുന്നേരത്തേയ്ക്കകം കൊടുത്തുവിടാന് പറ്റുമോ ഒരഞ്ച് അഞ്ച് മണി കഴിഞ്ഞ് കൊണ്ടുവന്നാല് മതി ആ ഹാ ഹാ ഹും ഹും ആ ആ ഷെയര് ചെയ്തേക്കാം ഞാന് ഇട്ടേക്കാം ഇട്ടേക്കാം ആ ആ ലൊക്കേഷന് ഇട്ടേക്കാം കേട്ടോ ഹാ ഹാ പൈസ ഗൂഗിള് പേ ചെയ്തേക്കാം ആ നമ്പറില് ഈ നമ്പറല്ലെ ആ ആ അത് ചെയ്തേക്കാം മ് മ് ആ ആ വേറെ ഇപ്പം അത്യാവശ്യമില്ല ആ ആ ഉണ്ടല്ലെ ആ ഇപ്പം ആദ്യത്തെ പ്രാവശ്യമല്ലെ നമുക്കിപ്പം അത് വേണ്ട ഇപ്പം ഫ്രെഷായിട്ട് ഇങ്ങ് തന്നാല് മതി കേട്ടോ അതുകഴിഞ്ഞ് നമുക്ക് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് ചെയ്യാം ആ അത് തന്നെ അതെ നമുക്കറിയത്തില്ലല്ലോ അത് ഫ്രെഷാണോ അല്ലയോയെന്ന് അറിയത്തില്ലല്ലോ ആ മസാല പുരട്ടിക്കഴിഞ്ഞാല് ആ ഹാ ഹാ ആ ഹാ ഹാ ശരി ശരി ആ ഹും ഹും ഹും ആ ഹാ ആ ശരി ശരി

ആ ഹാ വന്നിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് എത്തണം കേട്ടോ മ് ആ ഹാ ആ

ആ ഞാന് വിളിക്കാം വിളിക്കാം ഇതിനോടകത്ത് ആ പറഞ്ഞയക്കാം ആ പറഞ്ഞുവിടാം അല്ലെങ്കില് വിളിച്ചോളാം ഈ നമ്പരില്ത്തന്നെ വിളിച്ചോളാം മ് ആണല്ലെ ആ ഹാ ഹാ ആ ഹാ ആ അപ്പം കുഴപ്പമില്ല ഇന്നത്തെ ഇത് കഴിയട്ടെ കേട്ടോ എന്നിട്ട് പറയാം മ് ശരി ഓക്കെ ഓക്കെ ആ ഹാ ശരി ശരി ശരി